ഇപ്പോൾ വയനാട് ജില്ലയിൽ കൂടുതലായിട്ടും നമുക്കിപ്പോൾ എന്തെങ്കിലും വാർത്തകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വാ മലനാടൻ ന്യൂസ് വയനാട് വിഷൻ ഇങ്ങനത്തെ ചാനലുകളാണ് ഇപ്പോൾ വയനാടിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ പിന്നെ അല്ലാത്ത ചാനലുകളുണ്ട് ട്വൻറി ഫോർ ഉണ്ട് മീഡിയ വൺ അങ്ങനത്തെ പല ചാനലുകളുമുണ്ട് അപ്പോം ഇതൊക്കെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ചിലപ്പോൾ ചെന്നിട്ട് പറയണം എന്ന് ഇല്ല അപ്പം അവരൊക്കെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ആരെയെങ്കിലും ഫോൺ വിളിച്ച് ചോയ്ക്കും അവിടെ എന്താണ് നടന്നതൊക്കെ അറിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവർ ഇതിനകത്ത് കൂടെ വിടുന്നത് ഇപ്പോൾ ഈ അടുത്ത് എൻറെയൊരു ചാച്ചൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അവരുടെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയാ ഒരു തെറ്റായ ധാരണയിലുള്ള വാർത്തകളാണ് ഈ ഓരോ ചാനലുകളിലും കൊടുത്തിട്ടുണ്ടായിരുന്നത് സത്യാവസ്ഥ എന്താണെന്ന് പോലും അവർ അന്വേഷിക്കാൻ ഇതുവരെ തറ തയ്യാറായിട്ടില്ല ഇപ്പോഴും അവർ തെറ്റായ വാർത്തകൾ പല രീതിയിലും കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി ഇവിടെത്തന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനോരമ ന്യൂസില് ഒരു ആദിവാസി സ്ത്രീ മരിച്ചുന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ വയനാട്ടിൽ തന്നെ അപ്പോൾ എന്നിട്ട് അവർ ജീവനോടെ ഇപ്പോഴും ഉണ്ട് എന്നിട്ട് അവർക്കെതിരെ മ മനോരമ ന്യൂസിനെതിരെ ഒരു അതായത് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം നല്ല രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുന്ന ചാനലുകൾക്ക് ഇവർ മോശം രീതിയിലുള്ള കൊടുക്കുമ്പം എല്ലാ ചാനലുകൾക്കും ഈ ഒരു ഇതാണ് നെഗറ്റീവ് വരുന്നുണ്ട്